ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം എൻ്റെ മനസ്സിൽ നിന്നും ഇതുവരെയും എനിക്ക് മാഞ്ഞ് പോകാത്ത ഒരു പുസ്തകമാണ് ബെന്യാമിൻ്റെ ആട് ജീവിതം ആ പുസ്തകം ഞാൻ വർഷങ്ങൾക്ക് മുൻപ് വായിച്ചതായിരുന്നു പക്ഷേ ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് അതിൻ്റെ ഓർമ്മകളും ആ വരികളും എൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞ് പോയിട്ടില്ല ഒരുപാട് വർഷമായിട്ടുണ്ടെങ്കിലും എനിക്ക് ഇന്നലെ ഞാൻ വായിച്ചെടുത്തതു പോലെയാണ് എൻ്റെ മനസ്സിൽ ആ ഓർമ്മകൾ നിൽക്കുന്നത്

ആ ബെന്യാമിനാൻ ബെന്യാമിൻ്റെ ആ ആട് ജീവിതമെന്ന പുസ്തകത്തിൽ അയാൾ അനുഭവിക്കുന്ന ജീവിതം ഓരോ പ്രവാസിയും പ്രവാസജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളാണ് ഓരോരുത്തരും അത് തന്നെ നമുക്ക് എത്രയോ സങ്കടകരമായ ഒരു സങ്കടമുള്ള ഒരു കാര്യമാണ് പ്രവാസ ജീവിതം അതിലും എത്രയോ ഭയാനകമായിരുന്നു ആ ജീവിതം അവർ ഒരുപാട് സഹിച്ച് ഒരു തുള്ളി വെള്ളം പോലുമില്ലാതെ ഭക്ഷണമില്ലാതെ കുളിയില്ല അവരുടെ ആളുകളുമായിട്ടൊന്ന് സംസാരിക്കാനോ അവരുമായിട്ട് അവർക്കൊന്ന് അവരെക്കുറിച്ചൊരു വിവരറിയാനൊന്നും കഴിയാതെ അയാളവിടെ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു കഥ ഒരുപാട് കരഞ്ഞ് പോയിട്ടുണ്ട് അത് വായിച്ചതിന് ശേഷം ഉറക്കം ഉണ്ടായിരുന്നില്ല രണ്ട് ദിവസം ഭക്ഷണം കഴിക്കാൻ തോന്നിയിരുന്നില്ല അത്രക്കും ഞാൻ തളർന്ന് പോയിട്ടുണ്ട് ഓരോ ദിവസം അത് വായിച്ച് തീർന്ന് തീരും മുൻപേ നമുക്ക് എന്തിനെങ്കിലും അവിടെ നിന്ന് എണീക്കാൻ പോലും തോന്നിയിരുന്നില്ല അടുത്തത് എന്താകും എന്താകുമെന്നുള്ള ആകാംക്ഷയിൽ എത്രയും പെട്ടെന്ന് വായിച്ച് തീർക്കാനുള്ള ഒരു ഇതായിരുന്നു എനിക്കുണ്ടായിരുന്നത് എനിക്ക് ഇന്ന് ഞാൻ ഓർത്തെടുക്കുന്ന ഓരോ വരികളുണ്ടതിൽ എനിക്കും ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല ഒരുപാട് സങ്കടപ്പെടുത്തിയ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഒരുപാട് തവണ കരഞ്ഞിട്ടുണ്ട് അത് വായിച്ച് കഴിഞ്ഞിട്ട് പോലും എനിക്കതിൽ ഓരോ രംഗങ്ങളും ആലോചിക്കുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നുണ്ടായിരുന്നു ഞാൻ കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് ഓ ചില പുസ്തകങ്ങൾ എന്താണ് കഥ പോലും എനിക്കോർമ്മ കിട്ടുന്നില്ല ഈ പുസ്തകം വായിച്ച് കഴിഞ്ഞിപ്പോൾ കുറച്ച് ദിവസം മുൻപേ വായിച്ച കഥകൾ പോലും നമുക്ക് പെട്ടെന്ന് ചോദിച്ചാൽ ഓർത്തെടുക്കാൻ കഴിയില്ല പക്ഷേ ഇത് ഞാൻ വർഷങ്ങൾക്ക് മുൻപേ വായിച്ചെടുത്ത പുസ്തകങ്ങങ്ങളാണ് പുസ്തകമാണ് അതിലെ ഓരോ വരികളും മറക്കാതെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അത് അത്രക്ക് നമ്മുടെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ടാ പുസ്തകത്തിലെ ഓരോ വരികളും